ആ ഹലോ ആമസോണിൻ്റെ കാർട്ടിങ് ഓഫീസല്ലേ ആ ഞാനൊരു ലിനോവോവിൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും അതേപോലെയൊരു മൊബൈലും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കൂട്ടത്തിലേക്ക് വീണ്ടും ഒരു നാല് ഹെഡ്സെറ്റ് കൂടെ അതിലേക്ക് കാർട്ടില് ആഡായിട്ടുണ്ട് അപ്പോള് അതൊന്ന് ഒഴിവാക്കണം നിങ്ങള് ക്യാൻസല് ചെയ്യണം എന്നുവെച്ചാല് അത് മിസ്റ്റേക്ക് പറ്റിയതാണ് ഞാൻ ഓർഡര് ചെയ്തത് ഒരു ഒരു മൊബൈൽ ഫോണും അതേപോലെ ലെനോവോവിൻ്റെ ഒരു ഹെഡ്സെറ്റുമായിരുന്നു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള സെവൻറ്റി ഫൈവ് എഴുപത്തിയഞ്ച് മണിക്കൂര് ചാർജ് നില്ക്കുന്ന ഒരു ഹെഡ്സെറ്റൊക്കെയാണ് അത് നല്ല ക്വാളിറ്റിയുള്ളത് തന്നെയാണ് അപ്പോള് അതുമാത്രമാണ് ഞാന് ഓർഡർ ചെയ്തത് പക്ഷെ എന്തോ ഒരു മിസ്റ്റേക്ക് എന്തോ ഒരു തകരാറ് പറ്റിയിട്ട് അതിലേക്കൊരു നാല് ഹെഡ്സെറ്റ് കൂടെ ആഡായിട്ടുണ്ട് അപ്പോള് അതൊന്ന് ക്ലിയറാക്കി ക്യാൻസലാക്കിത്തരാൻ സഹായിക്കാമോ അപ്പോള് എൻ്റെ ഞാന് പതിനാല് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ബുധനാഴ്ചയാണ് ഞാനത് ഓർഡര് ചെയ്തത് കാർട്ട് ചെയ്തത് അപ്പോള് ആ ദിവസത്തെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് അതൊന്ന് ഒഴിവാക്കിത്തന്നിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു ഓക്കെ